കൂടുതലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റക്ക് പോകുമ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി വേറെ ആളുകളുടെ കാര്യങ്ങള് അന്വേഷിക്കേണ്ട പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാകും ആരോടും സംസാരിക്കണ്ട യാത്രകള് ആസ്വദിക്കാൻ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം വർത്തമാനം പറഞ്ഞൊക്കെ യാത്രകളിൽ സമയം കണ്ടെത്താറൊക്കെയുണ്ട് അപ്പോൾ സമയം പോവുകയും യാത്രകൾ ആസ്വദിക്കാൻ പറ്റാതെ വരും അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ആലോചിക്കാനും ചിന്തിക്കാനും കാണാനും അനേകം കാര്യങ്ങളുണ്ട് നമ്മുടെ ശ്രദ്ധ മാറി പോവുകയില്ല ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മള് പലപ്പോഴും വേറെ വിഷയങ്ങള് സംസാരിക്കുകയും നമ്മുടെ ശ്രദ്ധ മാറി പോവുകയും യാത്ര പോയത് ആസ്വദിക്കാൻ പറ്റാതൊക്കെയും വരും ബൈക്ക് യാത്ര ചെയ്യുന്ന സംഘവുമായ് ബന്ധപ്പെടാറുണ്ട് പക്ഷേ അത് വഴി ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഇതുപോലെ യാത്രകൾ നടത്തുന്ന സംഘങ്ങളുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകള് ഫേസ്ബുക്ക് ഗ്രൂപ്പുകള് ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട് അങ്ങനെയുള്ള ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരാൾ കണ്ടെത്താൻ നിസ്സാരമാണ് പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴാണ് അതിന് അതിൻറ്റേതായ യാത്രയുടെതായ സന്തോഷവും ഉണ്ടാവുന്നത് യാത്രകൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒത്തിരി ദൂരം നമുക്ക് പോകാം വേറെ ആരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി റിസ്ക് കുറവാണ് ഒറ്റയ്ക്കാണെങ്കിൽ സ്വന്തം കാര്യം നോക്കുമ്പോൾ റിസ്ക് കുറവാണ് വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ആൾക്ക് വല്ല അപകടങ്ങൾ ഒക്കെ വരും നമുക്കും അത് നമ്മളെയും ബാധിക്കുന്നു അങ്ങനെ സ്വന്തം കാര്യം നോക്കി പോകുന്ന ഒറ്റയ്കുള്ള യാത്രകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതിനുള്ള കാരണങ്ങള് ഇതൊക്കെയാണ് അങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ ഒരു നമ്മുടെ വ്യക്തിത്വത്തിനും വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നു ഈ മാറ്റങ്ങളൊക്കെ മറ്റൊരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല ഈ മാറ്റങ്ങൾ കണ്ടറിയാൻ പറ്റത്തില്ല അങ്ങനെ ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാനും പകൽ പ്രതാനമായിട്ട് പകൽ സമയങ്ങളൊക്കെയാണ് നമ്മള് തിരഞ്ഞെടുക്കുന്നത് രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതൊന്നും അത്ര സുരക്ഷിതമല്ല മഴക്കാലങ്ങളിൽ യാത്ര ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യുന്നത് അധികം സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഇപ്പോൾ യാത്രകൾ പോകുമ്പം